ഹലോ ആ നിങ്ങടവിടെ ഇടുക്കി മൂന്നാറിലേക്ക് ടൂറ് പാക്കേജ് എങ്ങനെയാണ് ആ ആ

അപ്പം നിങ്ങടടുത്ത് ഏതൊക്കെയാണ് വണ്ടി ഉള്ളത് ഞങ്ങൾ ഞങ്ങൾ ഒരൂ ഇരുപത്തഞ്ച് പേരുണ്ടാവും

ആ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഒരൂ ടൂ ഡേയും ത്രീ നൈറ്റും

ആ ഓക്കെ ആ എങ്ങനാണ് റിസോർട്ടാണോ ആ ഓക്കെ ആ

ആ ഓക്കെ ആ

ആ ഓക്കെ ഓക്കെ ആ

ഞങ്ങളിപ്പോൾ വായനാട്ടൂന്നാണ് വിളിക്കുന്നത് നിങ്ങൾ എവിടെയാണ് ട്രാവെൽസ് എവിടെയായിട്ടാണ് അപ്പം വന്ന് പിക്ക് ചെയ്യണം

ആ ഓക്കെ ഒ ഓ ഓക്കെ

ആ അല്ല നിങ്ങളിപ്പോൾ ബുക്ക് ചെയ്തിട്ടോളൂ ആ അടുത്ത മാസം അടുത്ത മാസം എത്ര മുതലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാം തീയതി മുതൽ അല്ലേ അപ്പമൊരു പത്തിനൊക്കെ ബുക്ക് ചെയ്തോളു ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഇനി എന്തെങ്കിലും മാറ്റൊണ്ടേൽ ഞാൻ നിങ്ങളെ വിളിക്കാം ആ ഓക്കെ ആ എന്നാൽ ശരി